ഞങ്ങളുടെ പ്രദേശത്തെ പ്രധാന തൊഴിൽ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നവരും ഉൽപാദനം ചെയ്യുന്നവരും സേവനങ്ങൾ ചെയ്യുന്നവരും സാങ്കേതികവിദ്യ ഉപയോഗിച്ചു ചെയ്യുന്നവരൊക്കെ ഒരുപാടുണ്ട് എന്നാൽ ഇപ്പോഴുള്ള ആളുകളൊക്കെയാണെങ്കിൽ കൃഷിയൊന്നും അങ്ങനെ ചെയ്യുന്നില്ല പഴയ ആളുകളൊക്കെയാണ് കൃഷികളൊക്കെ ചെയ്യുന്നത് വാഴ കൃഷി നെൽകൃഷി അങ്ങനെയുള്ള ഒരുപാട് പരുത്തി കൃഷി അങ്ങനെയുള്ള ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട് അതൊക്കെ കൂടുതലായിട്ടും കൃഷിയൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത് കർണാടക ഭാഗത്തൊക്കെയാണ് അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെയാണ് കൃഷികളൊക്കെ ചെയ്യുന്നത് ഈ പാൽ ഉത്പാദനം അങ്ങനെയുള്ള ഉത്പാദനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾ ചെയ്യുന്നത് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള സേ ഇത് തൊഴിലാണ് സാങ്കേതികവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ എന്തെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ കമ്പ്യൂട്ടറിന്റെ ആണെങ്കിലും കമ്പ്യൂട്ടറിന്റെയും ഫോണിന്റെയൊക്കെ ഫോണിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് പിന്നെ സാ പിന്നെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എന്തെങ്കിലൊക്കെ പണികളും എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാൻ പറ്റും അതുകൊണ്ടുതന്നെ ഇവിടെയുള്ള കൂടുതൽ ആളുകളും ഏറ്റവും എളുപ്പമുള്ള പണിയായിട്ടുള്ള സാങ്കേതികവിദ്യയാണ് ഇരുന്നു കൊണ്ട് ചെയ്യാനും കൃഷിയും ഉത്പാദനമൊക്കെയാണേ വെയിലത്ത് ഇറങ്ങിയിട്ടുള്ള പണിയൊക്കെയാണ് അങ്ങനെയുള്ള പണിയൊന്നും ചെയ്യാൻ ആരും ആർക്കും ഇപ്പോൾ നേരമില്ല എല്ലാവരും സാങ്കേതികവിദ്യയുടെ ലോകത്തായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്